ഹലോ ഇത് ടി വി എസിൻ്റെ ഷോ റൂം അല്ലേ ഏഹ് എനിക്ക് ഒരു ബൈക്ക് എടുക്കാൻ ആയിരുന്നു ടി വി എസിൻ്റെ എക്സ് എൽ ഹണ്ട്രഡ് അത് ഇപ്പം പ്രൊഡക്ഷൻ ഉണ്ടോ ആ ഓക്കെ അതിൻ്റെ കളർ ഏതൊക്കെയാണ് ഉള്ളത് ആ ആ ഓക്കെ ഓക്കെ എനിക്ക് ഒരു ബ്ലാക്ക് മതി ആ ആ ഓക്കെ ഓക്കെ അത് നല്ല എത്ര ദിവസം കൊണ്ട് കിട്ടും ആ ഓക്കെ ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ ആ ഓക്കെ ഷോ റൂം എവിടെ ആയിരുന്നു ആ ഓക്കെ ഞാൻ ഒരു വൺ അവറിനുള്ളിൽ വരാം

വേറെ ഫീച്ചേസ് മൈലേജ് ആ ഓക്കെ അടവൊക്കെ എങ്ങനെയാണ് വരുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഒരു വൺ അവറിനുള്ളിൽ എത്താം ആ ഞാൻ ഇവിടെ തലശ്ശേരി ആണ് ആ ലോണാണ് തരുമ്പോൾ ആ ഇപ്പോൾ തന്നെ ചെയ്യണം കവർ

ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എടുത്തോളൂ ആ ഓക്കെ ഇതിലുള്ള ഹെൽമെറ്റ് ഫ്രീ ആണോ ആ ഓക്കെ ഓക്കെ